ഞാൻ ഒരു പരാതി പറയാനാണ് നിങ്ങളെ വിളിക്കുന്നത് ഇന്നലെ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് അയച്ച കൊറിയർ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ സാധനം വളരെയേറെ മോശമായിട്ടാണ് എനിക്ക് കിട്ടിയത് കുറെ രണ്ടു മൂന്നു ദിവസം വൈകിയാണ് എനിക്ക് ലഭിച്ചത് അതു കൊണ്ട് വന്ന വ്യക്തി ഇത് വളരെ ഏറെ മോശമായ രീതിയിലാണ് എന്നോട് ഇങ്ങോട്ട് പെരുമാറിയത് അത് പറയാൻ വേണ്ടിയിട്ടാണ് അത് പരാതിപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വിളിക്കുന്നത് എന്തെന്ന് വച്ചാൽ അയാൾ വളരെയേറെ മോശമായ രീതിയിൽ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് വൈകിയേ എന്ന് പക്ഷെ അയാൾ പറഞ്ഞൂ അയാൾക്ക് സൗകര്യമില്ല ഇത് അയാളുടെ ചുമതല അല്ല എന്ന രീതിയിലാണ് അയാൾ പറയുന്നത് ഞാൻ നല്ല രീതിയിൽ തിരിച്ച് മാന്യമായി വർത്തമാനം പറഞ്ഞെങ്കിലും അയാൾ വളരെയേറെ മോശമായിട്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ പോലീസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഒരു വളരെയേറെ പുച്ഛത്തോടെയാണ് എന്നോട് സംസാരിച്ചത് എന്നെ വളരെയേറെ ഒരു വിലയില്ലാത്ത രീതിയിലാണ് വർത്തമാനം പറഞ്ഞത് ഒരു ഉപഭോക്താവിനോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയില്ല നിങ്ങളുടെ ജോലിക്കാരന് ഞാൻ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ എന്നോട് കൂടുതൽ കൂടുതൽ ചീത്ത പറയുകയാണ് ചെയ്തത് വളരെയേറെ ദേഷ്യവും ദേഷ്യവും വൃത്തികെട്ടതുമായ വാക്കുകളാണ് എന്നെ എന്നോട് പ്രയോഗിച്ചത് അയാൾ പോലീസിന് കമ്പ്ലൈൻ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് നിങ്ങളെ ഞാൻ വിളിക്കുന്നത് ഇത് ഞാൻ എന്ത് നടപടി ആണെടുക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് നടപടിയാണ് ഇതിൽ എടുക്കാൻ പറ്റുക പിന്നെ